ഹലോ മലബാർ ബേക്ക്സ് അല്ലെ ഞാൻ കുറച്ച് സാധനം നേരത്തെ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പാർട്ടി നടക്കുന്നുണ്ട് അപ്പം നാളെത്തേക്കാണ് സാധനം വേണ്ടത് ഹോം ഡെലിവറി ചെയ്യുമോ ഓക്കേ ഓക്കേ ഈ അവിടെ ജൂസ് ഐറ്റംസ് ഏതൊക്കെയാണ് ഉള്ളത് ഓക്കേ ഓക്കേ ഓക്കേ ലൈമ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ ലൈമ് വേണം ഒരു നൂറ് പേർക്ക് കൊടുക്കുന്ന ലൈമും കൂടി വേണം ഓക്കേ പിന്നെ ഐസ് ക്രീം ഏതൊക്കെയാണ് ഉള്ളത് ഉച്ചക്കത്തേക്ക് ഫുഡിൻ്റെ കൂടെ കൊടുക്കാൻ ആ ബോൾ ആയിക്കോളൂ ബോളും ഒരു നൂറെണ്ണം ഇതായിക്കോളൂ പിന്നെ കേക്ക് ഉണ്ടല്ലോ അല്ലേ കേക്കും വേണം ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ഒരു രണ്ട് കിലോൻ്റെ വേണം നിങ്ങൾ ഹോം ഡെലിവറി ചെയ്യുമോ ഓക്കേ ഞാൻ ലൊക്കേഷൻ അയക്കാം എൻ്റെ വീട് മാനന്തവാടി തോണിച്ചാലാണ് ഞാൻ ലൊക്കേഷൻ അയക്കാം ഹോം ഡെലിവറി ചെയ്താൽ അത്രയും നന്നായിരുന്നു ഓക്കേ ഓക്കേ ഓക്കേ എന്നാൽ ഞാൻ ഈ നമ്പറിൽ വിളിക്കാം ഓക്കേ